ഞങ്ങള് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേരുന്ന പരിപാടികളുണ്ട് അത് ഞങ്ങളാഘോഷിക്കുന്നത് ഓണത്തിനാണ് ഓണം ഓണം വിഷു അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് നന്നായിട്ട് ആഘോഷിക്കുക എല്ലാവരും വരും നമ്മുടെ അമ്മവീടോ അല്ലെങ്കിൽ തറവാട് ഒക്കെ ഉള്ളവര് ഒത്തൊക്കെ അവിടെ എല്ലാവരും ഒത്തുചേരും എന്നിട്ടവിടെയാണ് ആഘോഷങ്ങളും കാര്യങ്ങളുമൊക്കെ വരിക നല്ല രസമാണ് എന്താ പറയുക ഓണത്തിനാണെങ്കിൽ സദ്യയും കാര്യങ്ങളും ഉഫ് എല്ലാവരും ഉണ്ടാകുന്ന സദ്യയും പിന്നെ പായസം പിന്നെ പിന്നെയെന്താ പറയുക ഓണക്കളികള് പിന്നെ വിഷുവിന് പടക്കം വാങ്ങും എല്ലാവരും പടക്കം ഒക്കെ പൊട്ടിക്കും പിന്നെ കണി കാണും രാവിലെ എണീച്ച് കണി കാണും അതൊക്കെ ഭയങ്കര രസമാണ് പിന്നെയെന്താ പറയുക ഈ വിഷുവിനും ഒക്കെ നമ്മളെന്താകും രാവിലെ കണി എടുത്തിട്ട് ഇറങ്ങും അതിനകത്ത് അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു നമ്മള് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഡ്രംസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് രാവിലെ കണി കണ്ട് ഇറങ്ങും എന്നിട്ടവിടെ പോയിട്ട് അവിടേയും ഇവിടേയും പോയി ഇങ്ങനെ കലക്ഷനൊക്കെ എടുത്ത് എല്ലാവർക്കും ഫുഡ്ഡൊക്കെ മേടിച്ച് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കും അതൊക്കെ ഒരു കാലമായിരുന്നു